കോഴിക്ക് വരാറുള്ള ഏറ്റവും ഇതുള്ള ഒരു അസുഖമാണ് പക്ഷിപ്പനി പക്ഷിപനി ബാധിച്ച് കഴിഞ്ഞാൽ കോഴികൾ ചത്തുപോകും അങ്ങനെ ഒരുപാട് കോഴികൾ കൂട്ടത്തോടെ ചാവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം കുഞ്ഞുങ്ങൾ അത് മുട്ട നമ്മൾ അടവച്ച് വിരിയിച്ചെടുക്കുന്ന ആ കുഞ്ഞുങ്ങൾ ഇത്ര ദിവസമാകുമ്പം മുതൽ അത്ങ്ങൾക്ക് വാക്സിനേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും വാക്സിനേഷൻ അത് കൊടുക്കുന്നത് മൂലം കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധശേഷി ഉണ്ടാകുന്നുണ്ട് ഓരോ മാസത്തിലും അതായത് പത്ത് ദിവസം ഇരുപത് ദിവസം അങ്ങനെ ഓരോ പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ ഓരോ മാസങ്ങൾ കഴിയുന്ന തോറും മൂന്നുമാസം വരെ നമ്മൾ ഇത്ങ്ങൾക്ക് വാക്സിനേഷൻ കൊടുത്ത് മേടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രതിരോധശേഷിയുണ്ട് ആ കുഞ്ഞുങ്ങൾ ധാരാളം ഒത്തിരി നാൾ ജീവിച്ചിരിക്കുകയും പനികളൊന്നും അത്ങ്ങൾക്ക് പനിയൊന്നും അത്ങ്ങൾക്ക് ഉണ്ടാകത്തില്ല പനി ഉണ്ടാകത്തില്ല മറ്റുള്ളതിനെയെക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി അത്ങ്ങൾക്ക് ഉണ്ടാകും വാക്സിനേഷൻ എടുക്കാത്ത കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ അത്ങ്ങൾക്ക് പ്രതിരോധശേഷി ഇല്ലാത്തത് മൂലം അത് ചത്തു പോകാൻ സാധ്യതയുണ്ട് പിന്നെ നാടൻ കുഞ്ഞുങ്ങളാണെങ്കിൽ അത്ങ്ങൾക്ക് മുട്ട വിരിയിച്ച് എടുക്കുന്ന കുഞ്ഞുങ്ങളാണ് നാടൻ കുഞ്ഞുങ്ങൾ അതുങ്ങൾ ഒരു വാക്സിനേഷൻ കൊടുത്താലും അത്ങ്ങൾ ചിലപ്പോൾ അത് ഫലപ്രദമായിട്ട് വരത്തില്ല പിന്നെ പിന്നെ നമ്മൾ അത്ങ്ങൾക്ക് കൂടുതൽ വെള്ളം കുഞ്ഞ് ഈ ശുദ്ധജലമാണ് ഈ കോഴികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ശുദ്ധജലം എപ്പോഴും കുടിക്കാനായിട്ട് ആഹാരത്തിനേക്കാട്ടിൽ കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത് വെള്ളമാണ് വെള്ളം ചെന്ന് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കോഴികൾക്ക് പ്രതിരോധശേഷിയുണ്ടാവും പിന്നെ തീറ്റയും വെള്ളവും നമ്മൾ ഒരുപോലെയവർക്ക് കൊടുക്കണ്ടതാണ് പിന്നെ അത്ങ്ങളെ ഇടുന്ന കൂട് വായു നല്ല പോലെ കയറി ഇറങ്ങത്തക്ക രീതിയിലുള്ള ഒരു കൂടായിരിക്കണം ഇടുങ്ങിയ കൂടും ചൂട് ഏൽക്കുന്ന കൂടും കോഴികൾക്ക് ഇടാൻ പാടില്ല പിന്നെ ഒരുപാട് മഴ മഴ നനയാതെ തണുപ്പ് അടിക്കാതെ ഒക്കെ വേണം നമ്മൾ കോഴികളെ വളർത്താൻ പിന്നെ കോഴിയുടെ കൂടും പരിസരവും എപ്പോഴും നല്ല വൃത്തിയും ശുചിയുള്ളതായിരിക്കണം പിന്നെ കോഴികൾക്ക് നല്ല ആഹാരം തീറ്റകൾ കോഴി തീറ്റകൾ അത് നല്ല രീതിയിലുള്ള കോഴി തീറ്റകൾ വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ കോഴികൾക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കത്തുള്ളു നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ നല്ല തീറ്റകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ കോഴികളുടെ ഇത് കാഷ്ടം അത് നമ്മൾ നല്ലപോലെ കൂടൊക്കെ നല്ലപോലെ വൃത്തിയാക്കി വെള്ളം കഴുകാവുന്നതാണെങ്കിൽ അങ്ങനെ കഴുകി വൃത്തിയാക്കി അപ്പം നല്ല ഇതായിട്ട് കൊടുക്കാവുന്നതാണ് പണ്ട് കോഴികൾക്ക് ഒക്കെ എന്ന് വച്ചാൽ മഴയത്തും എല്ലാം നടന്നാൽ ഒരു പ്രശ്നവും ഇല്ല ഒരു മരത്തേലാണെങ്കിലും കയറിയിരുന്നാലും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല പക്ഷേ ഈ അവസ്ഥയിൽ ഇങ്ങനെയല്ല കോഴികൾക്ക് പ്രത്യേകം കൂടും അവർക്ക് പ്രത്യേക സംരക്ഷണവും ചൂട് കൊള്ളേണ്ട കോഴികളാണേ അത്ങ്ങൾക്ക് ചൂടും പിന്നെ അങ്ങനെ നമ്മൾ പ്രത്യേകം അതിന് സജ്ജീകരണങ്ങളുണ്ടാക്കി കൊടുക്കേണ്ടതാണ് പിന്നെ കൂടിന് നനയാത്ത രീതിയിൽ കോഴികൾ മഴ നനയാത്ത രീതിയിലുള്ള കൂടായിരിക്കണം അത്ങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് പിന്നെ മണ്ണിൽ ചെകഞ്ഞ് നടന്ന് കോഴികൾ മണ്ണിരകളും ഒക്കെ തിന്നാൽ മാത്രമേ കൂടുതലും പ്രതിരോധശേഷി കുഞ്ഞുങ്ങൾക്ക് കോഴികൾക്ക് ഉണ്ടാകാത്തുള്ളൂ അല്ലാതെ നമ്മൾ കൂട്ടിൽ തന്നെയിട്ട് വളർത്തിയാൽ കുഞ്ഞുങ്ങൾക്ക് കോഴികൾക്ക് പ്രതിരോധശേഷി ഉണ്ടാകത്തില്ല അത്ങ്ങൾക്ക് പിന്നെ വരുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കാനും തരണം ചെയ്യാനൊന്നും അത്ങ്ങൾക്ക് സാധിക്കത്തില്ല അതുമൂലം അത്ങ്ങൾ പെട്ടെന്ന് ചത്തു പോകാറുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടും തെരഞ്ഞെടുക്കുന്നത് നല്ല നല്ല കൂടായിരിക്കണം അത് മണ്ണിൽ നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മണ്ണിൽ നടന്ന് മണ്ണിൽ മണ്ണിരകളും പുഴുക്കളും പിന്നെ ഇലകൾ അത്ങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഇലകളാണ് കോഴികൾക്ക് ഏറ്റവും ആവശ്യം ഉള്ളത് ഇല കൊത്തി തിന്ന് അത്ങ്ങൾക്ക് കാൽസ്യത്തിൻ്റെ കുറവോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലകൾ കൊത്തി തിന്നാൽ അത്ങ്ങളുടെ കാൽസ്യത്തിൻ്റെ ആ ഒരു ഇത് മാറി അത്ങ്ങൾക്ക് നല്ല കാൽസ്യം കിട്ടും കാൽസ്യം ഇല്ല എന്നുണ്ടെങ്കിൽ കോഴികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി മറ്റുള്ള കോഴികളുടെ തൂവൽ കൊത്തി പറിച്ച് തിന്നാറുണ്ട് അങ്ങനെ ചെയ്യുന്ന കോഴികൾ കാൽസ്യക്കുറവ് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് അതിനു ധാരാളം പച്ചിലകൾ നമ്മൾ അത്ങ്ങൾക്ക് കൊടുക്കണം പച്ചിലകൾ വെ മുറിച്ച് വാഴയിലയോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പം വെൽവെറ്റ് പായൽ അങ്ങനുള്ള സംഭവങ്ങളൊക്കെ ഇട്ടുകൊടുക്കുവാണെങ്കിൽ അത്ങ്ങൾക്ക് കൊത്തി അത് തിന്ന് അത്ങ്ങൾക്ക് നല്ല പ്രതിരോധശേഷി എല്ലാം ഉണ്ടാകും അങ്ങനെ നമുക്ക് നല്ലയിനം കോഴികളെ കിട്ടും